കോവിഡ് നൈൻറ്റീൻ മൊത്തത്തിലങ്ങു ബാധിച്ചുവെന്നു തന്നെ പറയണം എനിക്ക് രണ്ടു പ്രാവശ്യം കോവിഡ് വന്നിട്ടുണ്ടായിരുന്നു അതുപോലെത്തന്നെ നൈബേഴ്സിനും വീട്ടിലെ ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കും കോവിഡ് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടുത്തന്നെ പുറത്തു പോകാനുള്ള സാഹചര്യത്തിലായിരുന്നില്ല എല്ലാം മാറി പുറത്തു പോണെങ്കിലും മാസ്ക് ഇട്ട് യുസ് ചെയ്തിട്ടേ പോകാൻ പറ്റുകയുള്ളൂ പിന്നെ കൂടുതലും ചുമയൊക്കെ ഉള്ളതുകൊണ്ട് പുറത്തു ട്രാവൽ ചെയ്യുന്നത് സേഫ് അല്ലായെന്നു തോന്നി അതുകൊണ്ടു കുറേ വീട്ടിൽ തന്നെയായിരുന്നു കുറേയിരുന്നത് ട്രാവൽ ചെയ്യാനൊന്നും അധികം പറ്റിയില്ല എന്നാലും ഞാൻ കുറച്ചു സ്ഥലങ്ങളിലൊക്കായിട്ടു ട്രാവൽ ചെയ്തു പക്ഷെ കോവിഡ് മൊത്തത്തിൽ ബാധിച്ചതോടെ അധികം പുറത്തു പോകാനൊന്നും എന്നെ കൊണ്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഏതു ജില്ലകളിൽ പോയാലും അലേർട്ട് ആയിരുന്നു എല്ലാവരും മാസ്ക് ധരിക്കണം പിന്നെ ഇടയ്ക്കിടെ കൈയ്യ് കൈയൊക്കെ വൃത്തിയാക്കണമെന്നുള്ള ഒരു ഇത് വന്നതോടെ പുറത്തൊന്നും പോകാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു പക്ഷെ അങ്ങനെ ആയത് ആയതിനാലും ഞാൻ പുറത്ത് കൂടുതൽ പോയില്ല പിന്നെ പോകാൻ പറ്റി പോകാൻ പറ്റിയ അവിടെയൊക്കെ കുറച്ചു യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റി പക്ഷെ അധികം ഞാൻ ട്രാവല്ലിംഗ് മൂഡിലാണ് ഞാൻ എപ്പോഴും ഉണ്ടാവുക പക്ഷെ ആ കോവിഡ് ബാധിച്ചതോടെ എനിക്ക് വീട്ടിലിരിക്കാൻ വീട്ടിലിരിക്കേണ്ട ഒരു അവസ്ഥ വരെ എത്തിച്ചേർന്നു